എനിക്ക് പാചകം ചെയ്യുമ്പോൾ അത്യാഹിതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ എൻ്റെ ഭാർത്താവിൻ്റെ പെങ്ങളുടെ മോൾക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അരി വാർത്തപ്പം കഞ്ഞിവെള്ളം വയറ്റിലോട്ട് വീണ് പൊള്ളുകേം പൊള്ളി പെട്ടന്ന് ഞങ്ങൾ പേസ്റ്റും തേച്ച് കോഴി നെയ്യ് ഇരിപ്പുണ്ടായിരുന്നു കോഴി നെയ്യ് എല്ലാം തേച്ച് വിട്ട് ഉടൻ ആശുപത്രിയിൽ പോവുകയും അതിന് മരുന്ന് ഫസ്റ്റ് എയ്ഡ് ചെയ്ത് കഴിഞ്ഞ് ആശുപത്രി പോവേം മരുന്നവരും ചികിത്സ് മരുന്ന് വെക്കുകയൊക്കെ ചെയ്താണ് മ മാറിയത് പിന്നെ പക്ഷേ നാം നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം അടുപ്പത്ത് അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ ഗ്യാസും ഓണാക്കി വെക്കുന്നതും അത് ഓഫ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ നാം നല്ല പോലെ ശ്രദ്ധിക്കണം അരി വർക്കുമ്പോൾ കഞ്ഞിവെള്ളം ഇങ്ങനെ പെട്ടന്ന് വരുന്ന വരാതെ പയ്യെ ശ്രദ്ധിച്ച് തന്നെ ചെയ്തെങ്കിലേ അല്ലെങ്കിൽ തെറിക്കും അതനുസരിച്ച് വേണം നാം അത് ചെയ്യുവാനായിട്ട് ആ അങ്ങനെ അപകടങ്ങളിൽ നിന്ന് രക്ഷപെടാനായിട്ട് അതാകുമ്പോൾ ശ്രദ്ധ വേണ്ടങ്കിലെ അത് പാചകത്തോട് നിൽക്കാൻ പറ്റത്തുള്ളു